ടി വിയിലുള്ള പരിപാടികളില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാ വീട്ടമ്മമാരെപ്പോലെതന്നെ സീരിയലുകള് തന്നെയാണ് കാരണം നമ്മൾക്ക് വേറെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാര്ക്ക് ജോലി കഴിഞ്ഞാല് വീട്ടിലെ പണി കഴിഞ്ഞാല് ഒരു വിനോദം എന്ന് പറായുന്നത് ടി വി കാണുന്നത് മാത്രമാണ് ഇപ്പോൾ ഫോണ് ഉണ്ടെങ്കിലും അപ്പോൾ നമ്മള് ഈ സീരിയല് കാണുമ്പം അടുത്ത എന്താണെന്നുള്ള നമുക്കൊരു ആകാംക്ഷ നമ്മളതില് ലയിച്ച് കുറേ പേര് സീരിയല് കാണുന്നതിനു കുറ്റം പറയുന്നുണ്ട് പക്ഷേ ഓരോര്ത്തര്ക്കും ഓരോ മാനസിക ഉല്ലാസമല്ലേ ചില ആള്ക്കാര് ടി വി കാണുന്ന വാർത്തകള് മാത്രം കാണുന്ന ആള്ക്കാരുണ്ട് എന്റെയൊക്കെ ഭര്ത്താവ് ടി വി കാണാന് വേണ്ടിയിട്ട് ചര്ച്ചകള് മാത്രമേ അദ്ദേഹം കാണത്തുള്ളൂ എനിക്കാണെങ്കില് സീരിയല് ഉറക്കം വരായ്കയൊന്നുമില്ല പക്ഷേ സീരിയല് എനിക്കിഷ്ടവുമാണ് കാണാന് വേണ്ടിയിട്ട് കാരണം അതൊരു നല്ല രസമാണ് അത് കാണാന് വേണ്ടിയിട്ട് നമ്മള് ഒരു നോവല് വായിക്കുന്നത് നമ്മുടെ കറക്ട് നമ്മുടെ കൺമുന്നില് കാണുന്നു അത്രയേ ഉള്ളൂ പണ്ട് നമ്മള് മാസികകള് വായിച്ചുകൊണ്ടിരുന്നായിരുന്നു ടി വിയൊക്കെ വരുന്നതിനു മുന്നേ ഇപ്പോൾ നമ്മള് മാസികകള്ക്ക് പകരം നമ്മള് നമ്മുടെ കണ്ണില് നമ്മള് കാണുണു അപ്പോൾ നമ്മള് അതുമായിട്ട് ആ എന്തായി അടുത്തത് എന്തേ നമക്കൊരു ആകാംക്ഷ ഒരു ഒരു അടുത്തത് എന്താവും എന്നുള്ളൊരു ആകാംക്ഷ ഇതൊക്കെ ഇതൊക്കെ അറിയണം അനുഭവിക്കണം എന്നുണ്ടെങ്കില് നമ്മള് ഒരു വീട്ടമ്മ മാര്ക്കാണ് കൂടുതല് ഈ സീരിയലിനോട് കൂടുതല് ഒരു താല്പര്യം ഉള്ളത് എനിക്കറിയില്ല ആണുങ്ങള് അധികം സീരിയല് കാണുന്നത് കാണുന്ന ആള്ക്കാരുണ്ട് ആ പക്ഷേ എനിക്കങ്ങനെ കൂടുതലായി അറിയത്തില്ല കാരണം ഇപ്പോൾ എന്റെ അറിവില് പെണ്ണുങ്ങളാണ് കൂടുതലായിട്ടും ഈ ടി വി സീരിയലുകള് കാണുന്നത്